ഞാൻ പിന്നെ കുറച്ച് ടൂൾസ് ആയിരുന്നു വാങ്ങിച്ചത് അത് പിന്നെ ആമസോണിൽ നിന്ന് ആണ് വാങ്ങിയത് ഒരു കോംബോ ഓഫർ ഉള്ളപ്പോൾ അതിനനുസരിച്ച് വാങ്ങിയതാണ് അതിൽ പിന്നെ ഈ സ്ക്രൂഡ്രൈവർ ആണ് ഞാൻ എടുത്തത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് പോലെ വിലയൊക്കെ കുറവാണ് കുറേ ടൂൾസ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് പിന്നെ സ്ക്രൂഡ്രൈവർ പക്ഷേ അത് വലിയ കാര്യമായിട്ട് നമുക്ക് മുറുക്കാൻ മുറു മുറുക്കി വരുന്ന മുറുക്കാൻ കുറച്ച് ഒരു താമസമാണ് അത്ര സപീഡിൽ നമുക്ക് മുറുക്കിയെടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ഇതേ ഉള്ളൂ പക്ഷേ ഒരു കോംബോ ഓഫറിൽ വാങ്ങിച്ചത് കൊണ്ട് ലാഭമാണ് പക്ഷേ കാര്യമായിട്ട് സ്ക്രൂ ഒന്നും മുറുക്കി ഇതാക്കാൻ നമുക്ക് പറ്റുന്നില്ല